ഗുഡ് മോര്ണിംഗ് മാം ഇത് ടോപ് ഹോം റസ്റ്റോന്റ് ആണോ നൂര് ജഹാന് ആയിരുന്നു താമരശ്ശേരിന്നാ വിളിക്കുന്നത് ആഹ് ഫുഡ് ഓര്ഡര് ചെയ്യാന് വേണ്ടി വിളിച്ചതായിരുന്നു നെയ്ച്ചോറും ബീഫും ഉണ്ടാവോ ആ എത്രയാകും റേറ്റ് ഞങ്ങൾ മൂന്നു പേരുണ്ട് മൂന്നു പേര്ക്കുള്ളതാണ്

രണ്ടും കൂടിയാണോ അല്ലെങ്കിൽ ബീഫ് മാത്രമാണോ അല്ലെങ്കിൽ നെയ്ച്ചോർ മാത്രമാണോ രണ്ടും കൂടിയിട്ട് ഓക്കെ ഡെലിവറി ചാര്ജ് എങ്ങാനും ഉണ്ടോ താമരശ്ശേരി ടൗണിനു അടുത്തന്നെയാണ്

ആ ആ അ

ആ ആയിക്കോട്ടെ ഇല്ല ഞങ്ങള്ക്ക് നെയ്ച്ചോറും ബീഫും മാത്രം മതി ആ ഇന്ന് കുറെ ലേറ്റ് ആകുമോ എത്താൻ ഞങ്ങൾക്ക് പെട്ടെന്ന് വേണമായിരുന്നു ഞങ്ങൾക്ക് രാത്രിത്തേക്കായിരുന്നു പക്ഷേ കുറച്ച് നേരത്തെ കിട്ടിയാൽ നല്ലതായിരുന്നു

ആ ആയിക്കോട്ടെ ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ആ പിന്നെ ക്യാഷ് എങ്ങനെയാണ് ഗൂഗിള് പേ ആണോ അല്ലേൽ ക്യാഷ് ഓണ് ഡെലിവറി ആണോ ആ ആയിക്കോട്ടെ

ആ ആയിക്കോട്ടെ

ഇല്ല ഞാന് പറഞ്ഞ ഓര്ഡറു മാത്രം മതി ഞങ്ങൾക്ക് ആ ആ മൂന്നു പേര്ക്ക്

ആ ആയിക്കോട്ടെ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ